ലോക തലത്തിൽ തന്നെ ഇന്ത്യൻ കല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കലാകാരന്മാരും അന്യം നിന്ന് വരുന്നപോലെ ഒരു കലാരൂപമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ലോകത്ത് തന്നെ ഇപ്പം ഇഷ്ടംപോലെ ആള്ക്കാർ കാര്യങ്ങൾ വരയ്ക്കുന്നുണ്ട് അപ്പം നമുക്ക് കൂടുതലായിട്ടും നല്ല രീതിയില് വരയ്ക്കുന്ന ആള്ക്കാരൊക്കെയാണ് മെയിനായിട്ട് ചെയ്യേണ്ടത് എന്ന് വേണമെങ്കില് പറയാം അപ്പം കലാകാരന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം സിനിമയിൽ മാത്രം ഒതുങ്ങി പോവുക അങ്ങനത്തെ കാര്യങ്ങളിലാണ് കൂടുതലായിട്ട് ഇപ്പം നാടകം എന്ന് പറഞ്ഞ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ നാടുകളിലൊന്നും അങ്ങനെ കാണാന് പറ്റാത്ത രീതിയിലൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ ചിലർ ഡാൻസ് കളിക്കുന്നവരുണ്ടാകും പാട്ട് പാടുന്നവരുണ്ടാകും ഇങ്ങനത്തെ പല രീതിയിലുള്ള കലാകാരന്മാരും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമ്മുടെ ഇതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ ഇപ്പം പിന്നെ കൂടുതലും ഡിജിറ്റല് യുഗം ആയ യുഗം ആയതുകൊണ്ട് ഡിജിറ്റൽ പെയിന്റിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ടും അവർ ചെയ്യുന്നതെന്ന് വേണമെങ്കിൽ പറയാം കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിജിറ്റലായിട്ടും കലയെ പ്രോത്സാഹിപ്പിക്കുക അങ്ങനെത്തെ കാര്യങ്ങളാണ് കൂടുതലായിട്ടും അവർ ചെയ്യുക അപ്പോൾ ഡിജിറ്റല് വന്നതോടെ നമ്മുടെ കലാകാരന്മാരുടെ ഒരു സാന്നിധ്യവും കാര്യങ്ങളൊക്കെ കുറഞ്ഞു വന്നിട്ടുണ്ട് അവർക്ക് നല്ല രീതിയിൽ അവരുടെ കലയെയൊക്കെ ബാധിച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു ഗാനമേള നടത്തുവാണെങ്കിൽ അതിന്റെ പാട്ട് പാടുന്ന ആള്ക്കാരൊക്കെ കൂടുതലായിട്ടും കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കാരണം ഇപ്പം ഗാനമേള ആസ്വദിക്കുന്നവരൊക്കെ കുറവ് ആയിട്ടാണ് ഉള്ളത്